എനിക്ക് ടി വി പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റിയാലിറ്റി ഷോസ് ആണ് റിയാലിറ്റി ഷോസ് റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ പലതുണ്ട് ഡാൻസിൻറ്റേത് പാട്ടിൻറ്റേത് പിന്നെ അങ്ങനെ പല പല ഇതുണ്ട് ഇപ്പോൾ പാട്ടിൻ്റെ എടുക്കുവാണെങ്കിൽ ചെറിയ കുട്ടികൾ ഒരു രണ്ട് ഒരു മൂന്ന് നാല് വയസ്സ് തൊട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ റീ പാട്ടിൻ്റെ അതിൽ ചോയിസിൽ ഷോസിലാണെങ്കിൽ വന്ന് ചേരാറുണ്ട് അല്ലെങ്കിൽ അവർ അതിലേക്കാണെങ്കിൽ എടുക്ക ഒഡീഷനിലൂടെ അവരെ എടുക്കാറുണ്ട് അതിലൂടെയാണെങ്കിൽ അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത് അവരുടെ അല്ലെങ്കിൽ കഴിവുകളും കാര്യങ്ങളും ഒക്കെയാണെങ്കിൽ നന്നായിട്ട് അതിൽ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ടും അതിലൂടെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഡെവലെപ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അവർക്കാണെങ്കിൽ അവളുടെ അവർ അവരാണെങ്കിൽ അതിലൂടെ അവർ ഭയങ്കര രീതിയിൽ അവരുടെ കഴിവുകൾ തെളിയിച്ച് അവർക്കാണെങ്കിൽ സിനിമകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും ഒക്കെ ആണെങ്കിൽ ഓരോ ചാൻസസ് കിട്ടുവാണ് ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് അതിലൂടെ പുറകിലോട്ട് പുറകിലേക്ക് മാറുന്നില്ല അവരാണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ കഴിവുകൾ കാണിച്ച് അവർ മുന്നോട്ടേക്ക് വരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാ പാട്ടെടുക്കുവാണെങ്കിൽ പാട്ടിൻറ്റേത് ഈ ഒരു രീതിയിലാണ് പോവുന്നത് അതുപോലെ തന്നെ ആണ് ഡാൻസിന്റേത് ഡാൻസിൻ്റെ ആണെങ്കിലും പല ആൾക്കാരും ഇതുപോലെ റിയാലിറ്റി ഷോസിലൂടെ ആണെങ്കിൽ വന്ന് സ്വന്തമായിട്ട് ഇപ്പം ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുന്ന പല ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ അവരതിലൂടെ ആണെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിച്ച് അവരുടെ കഴിവുകൾ മറ്റുള്ളവർക്കും പകർന്ന് കൊടുക്കുന്ന രീതിയിലും നല്ല രീതിയിലാണെങ്കിൽ ഈ റിയാലിറ്റീസ് വ റിയാലിറ്റി ഷോസ് ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർക്കിപ്പം എന്താണ് ഈ മൂവീസുകളൊക്കെയാണെങ്കിലും അവർക്ക് അവിടെ അവിടെ അവിടെ കൊ കൊറിയോഗ്രഫി ചെയ്യാനായിട്ടാണെങ്കിൽ അവർക്ക് ചാൻസസ് കിട്ടുവാണ് അവരതിലൂടെ ആണെങ്കിൽ അവരുടെ ഓരോ കഴിവുകളും പുറത്ത് കൊണ്ട് വരുവാണ് ചെയ്യുന്നത് ഒരിക്കൽ ഈ ഈ റിയാലിറ്റി ഷോ ആണെങ്കിൽ ഇങ്ങനെയൊരു ഒരു പ്ലാറ്റ്ഫോം അവർക്കത് കിട്ടുന്നത് എന്ത് കൊണ്ടും നല്ലതാണ് നമ്മളുടെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഇതൊന്നും ലഭിച്ചിട്ടില്ല അവർക്കാണെങ്കിൽ അവരുടെ കഴിവുകളാണെങ്കിലും പുറത്ത് കാണിക്കുക അല്ലെങ്കിൽ ആ കഴിവുകളൊന്നും അവർക്കത് യൂസ് ചെയ്യാണ്ടെ അവർ അവരുടെ ആ ഒരു രീതിയിലേക്ക് അവരത് പുറകോട്ടേക്ക് മാറി മാറി നിൽക്കുക പക്ഷേ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്ന് കഴിയുമ്പോഴേക്കും കഴിവുകൾ ഉള്ള കുട്ടികളെ അവർ തിരഞ്ഞ് പിടിച്ചാണെങ്കിൽ കൊണ്ടുവന്ന് അവരുടെ ആണെങ്കിൽ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും അല്ലെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ വളർത്തി എടുക്കുവാണ് ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള നോളജും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പ്രെസന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഇത് നല്ല രീതിയിൽ ആകും എന്നൊക്കെ ആണെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നോളജ് എല്ലാം കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കി എടുത്ത് അവർക്ക് വീണ്ടും നല്ല രീതിയിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോയിലാണെങ്കിൽ പങ്കെടുത്തു ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേറെയൊന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലല്ല നിങ്ങൾക്ക് ഈ ഒരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചാൻസ് കിട്ടും അല്ലെങ്കിൽ അടുത്ത റിയാലിറ്റി ഷോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ വേറെയെന്തെങ്കിലും ഇപ്പോൾ മൂവീസിൽ അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ വേറെ ഉള്ള ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ വല്ല പ്രോഗ്രാംസ് സ്റ്റേജ് ഷോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാവർക്കുവാണെങ്കിൽ പങ്കെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് ഈ ഒരു ഇതിൽ ഇന്ന് എന്നൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഇതിലൂടെ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട് അവർക്ക് അതിലൂടെ ആണെങ്കിൽ ഇപ്പം മ്യൂസിക് ക്ലാസുകൾക്കൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് അവരായിട്ട് സ്വന്തമായിട്ട് വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവരാണെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്കും ചാൻസസ് ഉണ്ടാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് നല്ല രീതിയിലാണെങ്കിൽ അവർക്കാണെങ്കിൽ ഈ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ലൈഫ് സേഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ സേഫ് ആയിട്ടാണ് അവർ ഈ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് പോവുന്നത് അവർക്ക് അവരുടെ എന്താണ് കഴിവുകൾ നല്ല രീതിയിൽ ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർക്ക് ഉള്ള കഴിവുകൾ മാത്രമല്ല അവർക്ക് വീണ്ടും ആ ഒരു കഴിവിനെ അവർക്ക് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയി അവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മ്യൂസിക് ഡാൻസ് അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളെല്ലാം എടുത്ത് കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് സ്റ്റോപ്പ് ആവുന്നില്ല അതിനുശേഷം അവരാണെങ്കിലും മ്യൂസിക് ക്ലാസുകൾ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസുകൾ തുടങ്ങുക അങ്ങനെയുള്ളതൊക്കെ തുടങ്ങി അവർ അതിലൂടെയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ കഴിവുകൾ തെളിയിക്കുക അല്ലെങ്കിൽ വേറെ വല്ല വലിയ വലിയ പ്രോഗ്രാംസുകളിൽ കൊറിയോഗ്രഫി അല്ലെങ്കിൽ പ്ലേബാക്ക് സിംഗർ ആയിട്ട് പോവുക സ്റ്റേജ് ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള കുറേ ഫെയിം ഒക്കെ ആവുക അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിലാണെങ്കിലും ഈ ഒരു എന്താണ് റിയാലിറ്റി ഷോസ് ഒക്കെ ആണെങ്കിൽ അവർ അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു രീതി അവർക്ക് കൊടുക്കുന്നുണ്ട് കുഞ്ഞ് കുട്ടികൾ ഇപ്പം ഇപ്പമുള്ള കുഞ്ഞ് കുട്ടികളൊക്കെ ഈ ഒരു രീതിയിലൂടെ വരും ഇഷ്ടംപോലെ വരുന്നുണ്ട് അവരൊക്കെയാണെങ്കിൽ എന്താണ് പറയുക അവർക്ക് ഇതുപോലെ അവരുടെ പാ പാട്ടിലായിരിക്കും അവരുടെ കഴിവ് അല്ലെങ്കിൽ ഡാൻസിലായിരിക്കും അവരുടെ കഴിവ് അപ്പം അവരൊക്കെ ആ ഒരു കഴിവ് പുറത്ത് കാണിച്ച് അതിലൂടെ ആണെങ്കിൽ അവർ വീണ്ടും വീണ്ടും അവരുടെ നല്ല രീതിയിൽ അവർക്ക് പറ്റും അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് പറ്റും നല്ല രീതി പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആണെങ്കിൽ അവർ മുന്നോട്ട് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ അവർക്ക് എന്താണ് പറയുക ഫെയിം ആകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആണെങ്കിൽ അവർക്ക് വീണ്ടും ഓരോ സ്റ്റേജ് ഷോസ് കിട്ടുന്നു അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റുന്നു പ്ലേബാക്ക് സിംഗർ ആയിട്ട് അവർക്ക് പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറേ കുറേ കാര്യങ്ങൾ അവർക്ക് പറ്റുന്നുണ്ട് അതിലൂടെയാണെങ്കിൽ അവർ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരിടം നേടുകയാണ് അങ്ങനെയുള്ള കുറേ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ആരെയും മാറ്റി നിർത്തുന്നില്ല അല്ലെങ്കിൽ ഇപ്പം ആദ്യമേ ആണെങ്കിൽ വന്ന് ജോയിൻ ചെയ്ത ആൾ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവർ മാറ്റി നിർത്തില്ല അവർ വീണ്ടും വീണ്ടും അതിലേക്കാക്കാണെങ്കിൽ നല്ല രീതി ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുത്ത് അവർക്ക് വീണ്ടും അവരെ അവരുടെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് നല്ല രീതി ചെയ്യിച്ച് നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്